ഹലോ ഗുഡ് ഈവെനിംഗ് ഐഡൻ്റിറ്റി ട്രാവെൽസ് ആ നിങ്ങളുടെ പേരെന്താണ് ആ എവിടെയാണ് സ്ഥലം

ആ എത്ര ദിവസത്തേക്കാണ് വേണ്ടത് എത്ര ദിവസത്തേക്കാണ് വേണ്ടത് ആ രണ്ടാഴ്ച്ച ഓക്കെ ആ അത് ഒരു ദിവസത്തേക്ക് നമുക്ക് നാലായിരം രൂപ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ പത്ത് ദിവസത്തേക്ക് നാല്പതിനായിരം ആവും നിങ്ങൾക്ക് ഏതൊക്കെ ബൈക്ക് ആണ് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഹിമാലയ ഒക്കെ ഉണ്ട് ഇവിടെ ബുള്ളറ്റ് എല്ലാം ആധാർ കാർഡും ഐഡൻ്റിറ്റി കാർഡും വേണം പിന്നെ ക്യാഷ് പകുതി അഡ്വാൻസ് ആയിട്ടുതന്നെ നൽകണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഹലോ ആ നിങ്ങൾ വണ്ടിക്കെന്തെങ്കിലും അപകടമൊക്കെ പറ്റുകയാണെങ്കിലൊക്കെ അതിൻ്റെ ഒക്കെ ക്യാഷ് കൂടുതലായിട്ടും തരേണ്ടി വരും

ഹെൽമെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇല്ല ഇല്ല അത് അവരവർ കൊണ്ടുവരേണ്ടി വരും ആ രണ്ട് ഹെൽമെറ്റും നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും അതോ രാവിലെ മോർണിംഗിൽ ഇവിടെ ഒമ്പത് മണി ആവുമ്പോൾ ഷോപ്പ് തുടങ്ങും ഓപ്പൺ ചെയ്യും കൽപറ്റ ആ ടൗണിൽ തന്നെയാണ് ആണോ അതെ ആ മൂന്ന് പേരുടേയും വേണം എത്ര വണ്ടിയാണോ എത്ര വണ്ടിയാണോ നിങ്ങൾ എടുക്കുന്നത് മൂന്ന് വണ്ടി ആണെങ്കിൽ മൂന്ന് വണ്ടി മൂന്ന് ആൾക്കാരുടെ ഐഡൻ്റിറ്റി കാർഡ് വേണം ഐഡൻ്റിറ്റിയും ഓക്കെ ആഹ് താങ്ക് യു